പല പല ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിലും തുന്നൽ എന്ന് പറയുന്നത് ഒരു ശെരിക്കും പറഞ്ഞാൽ ഒരു അത്യാവശ്യമായ ഒരു ഘടകമായിട്ട് മാറിയിരിക്കുന്നു എന്നുതന്നെയാണ് പറയേണ്ടത് കാരണം ഒരു ഉടുപ്പിൻ്റെ ബട്ടൻസ് പോയാലും നമ്മൾ തുന്നണം ഒരു ശകലം കീറിയാലും നമ്മൾ തുന്നണം ഇപ്പം കുട്ടികൾ സ്കൂളിൽ പോവാൻ സമയത്തായിരിക്കും അവൻ്റെ ബട്ടൻസ് ഇല്ല ഇത് അയ്യോ അത്യാവശ്യം എന്ന് പറയുമ്പോൾ ആ ബട്ടൻസ് നമ്മൾ വെച്ചുകൊടുക്കേണ്ടി വരും ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും ചെറിയൊരു കീറൽ കാണും അപ്പോൾ തുന്നേണ്ടി വരും അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണ് എത്ര ഉത്തരവാദിത്തം ഉണ്ടെങ്കിലും തുന്നലെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ലെഷർ ആയിട്ടല്ല എനിക്ക് തോന്നുന്നത് അത്യാവശ്യമായ ഒരു ഘടകമായിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രചോദനം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ തുന്നലെന്ന് പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമായ അത്യന്താപേക്ഷിതമായ ഒരു ആവശ്യം തന്നെയാണ് ഒരു വിദ്യ തന്നെയാണ്